എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ സന്തോഷം എന്ന് പറയാനാണെങ്കിൽ എനിക്ക് എന്നു പറയുമ്പോൾ

സ്പെന്റ് ചെയ്യുകയാണ് അവര് സാധാരണ ചെയ്യാറ് അപ്പോൾ എനിക്ക് എന്താണ് എന്റെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ അച്ഛനെയും അമ്മയെയും എന്താ പറയുക ജോലിക്കൊന്നും വിടാണ്ട് അവരെ എന്റെ ചിലവില് നോക്കാന് കഴിയുകയാണെങ്കിൽ അതില് പരം സന്തോഷം എനിക്കിപ്പോൾ എന്താ പറയുക വേറൊന്നുമില്ലെന്നാണ് ഞാന് വിശ്വസിക്കുന്നത് കാരണം ഞാന് ജനിച്ച് ഇത്രയും അറിവ് ആയതുവരെ അവര് എന്റെ കാര്യങ്ങള് നോക്കി എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരാന് ഒക്കെ ആയിട്ടാണ് അവര് കൂടുതലും ശ്രമിക്കുന്നത് കാരണം അവരുടെ ജീവിതം എന്താ പറയുക എനിക്കായിട്ട് മാറ്റി എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി മാറ്റി വച്ചിരിക്കുകയായിരുന്നു അവർ ഇത്രയും നാളും അപ്പോൾ ഞാന് ഉദ്ദേശിക്കുന്നത് എന്റെ ഒരു സന്തോഷം എന്ന് പറയുമ്പോള് അവര്ക്ക് അവര് ജോലിക്കൊന്നും പോകാണ്ട് അവരുടെ കാര്യങ്ങള് എല്ലാം എന്നെക്കൊണ്ട് തന്നെ നോക്കാന് കഴിയുകയാണെങ്കിൽ അവരെ എന്താ പറയുക അവരെ ജോലിക്ക് ഒന്നും വിടാണ്ട് അവരുടെ കാര്യം നോക്കി എനിക്ക് ജീവിക്കാന് കഴിയുകയാണെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിലെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് ഞാന് കരുതുന്നത്